ഹലോ ഒരു കാർ ബുക്ക് ചെയ്യാനാണേ ഞങ്ങൾക്കൊരു പിന്നെ ടൂർ പോവാൻ വേണ്ടിയിട്ടാണ് അതിന് ഒരു കുറച്ച് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഒരു കുടുംബം പിന്നെ അടുത്തുള്ള ആൾക്കാരും ഒരു വീട്ടുകാരും എൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഒരു കുറച്ചു വലിയ വണ്ടി ആയിരിക്കണം പിന്നെ ചെറിയ വണ്ടിയിൽ കൊളളൂല്ല ഞങ്ങള് പത്ത് പതിനഞ്ച് ആളോളം പന്ത്രണ്ട് ആളോളം ഉണ്ടാകും പന്ത്രണ്ട് പതിമൂന്ന് ആൾ വരെ ഉണ്ടാകും അപ്പോൾ ഞങ്ങൾക്ക് ഒരു ട്രാവലർ തന്നെ ബുക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്നോവ പറ്റൂല്ല മറ്റേ കാർ തന്നെ ബുക്ക് ചെയ്യണം അല്ല ഇത് ട്രാവലർ തന്നെ ബുക്ക് ചെയ്യണം അതുകൊണ്ട് പിന്നെ നിങ്ങൾ നമ്മളെ അറിയുന്ന ആയതുകൊണ്ട് പിന്നെ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങള് പിന്നെ നമ്പർ തരാം ഞങ്ങൾക്ക് പിന്നെ ഞായറാഴ്ചയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് അപ്പോൾ ഞായറാഴ്ച ഒരു ആറര മണിയാകുമ്പോൾ ഇവിടെ എത്തണം അതുകൊണ്ട് നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു കേട്ടോ പിന്നെ നിങ്ങള് നിങ്ങള് എൻ്റെ നമ്പർ എഴുതി വച്ചോളി ആ നമ്പറിൽ വിളിച്ചാൽ വിളിച്ചാൽ മതി അപ്പോൾ പിന്നെ മറക്കരുത് രാവിലെ ആറര മണിക്ക് ഇവിടെ എത്തണം